കൂടുതൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നിലവിൽ വരണമെന്ന് തന്നെയാണ് പുതിയ പഠനങ്ങളും പുതിയ റിസേർച്ചുകളും പറയുന്നതും അങ്ങനെതന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് പാഠപുസ്തകങ്ങൾ മാത്രം പഠിച്ചാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിലേക്കും ഉന്നത വിദ്യാഭ്യാസങ്ങളിലേക്കും ചേക്കേറുന്നത് അങ്ങനെതന്നെയാണ് അപ്പം നമ്മുടെ സ്കൂളുകളിൽ ആശാരിപ്പണി പ്ലംബിങ്ങ് തുന്നൽ കോഴി വളർത്തൽ മൃഗ സംരക്ഷണം എന്നിവ പഠിപ്പിക്കുന്നതിലൂടെ നമ്മുടെ പുതിയ തലമുറയെ കൂടുതൽ തൊഴിലവസരങ്ങളിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് സാധിക്കും ഇന്ന് നമ്മുടെ ഇന്ത്യ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തൊഴിലില്ലായ്മ അല്ലെങ്കിൽ ഇപ്പോഴുള്ള തലമുറ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ വർദ്ധിച്ച് വരുന്നതു കൊണ്ട് തന്നെയാണ് അവരുടെ അവസരങ്ങൾ വർദ്ധിപ്പിക്കാനും അവർക്ക് അവരുടേതായ തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രാപ്തി നമുക്ക് ഇതിലൂടെ നേടിക്കൊടുക്കാൻ പറ്റും അപ്പോൾ കൂടുതൽ നമ്മൾ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം കാഴ്ച വെക്കുമ്പോൾ നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും മറ്റ് ഏത് രാജ്യത്തിലായാലും നമ്മുടെ കുട്ടികളെ കൂടുതൽ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാനും അവരത് ഒരുപാട് സഹായിക്കും അതുപോലെ തന്നെ സ്വന്തം കഴിവുകളെ തിരിച്ചറിയാനും സ്വന്തം നമുക്ക് എന്ത് ജോലിയാണ് പറ്റുക എന്ന് കുട്ടികൾക്ക് തിരിച്ചറിയാനുള്ള ഒരറിവും കൂടിയാണ് നമുക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് കൊടുക്കാൻ സാധിക്കുക ഇപ്പം തന്നെ പല സ്കൂളുകളിലും പോൾട്രീ ഫാമിങ്ങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിലവിൽ വരുന്നുണ്ട് ഇപ്പം തന്നെ എൻ്റെ കോളേജിൽ അക്വാ കൾച്ചർ കൊണ്ട് പോകുന്നുണ്ട് എൻ്റെ കോളേജിൽ അക്വാ കൾച്ചറിനുള്ള ഒരു റൂം കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് ഇപ്പം നമ്മുടെ കോളേജിൽ ഒരുപാടിപ്പ പുതിയ പുതിയ കോഴ്സുകൾ നിലവിൽ വരുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ ക്ലാസുകളിലേക്ക് അത് പോകുന്നില്ല എന്നതാണ് വള് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം അതാണ് ചെറിയ ക്ലാസ് മുതലേ മണ്ണും കാറ്റും മഴയും ഒക്കെ അറിഞ്ഞ് വേണം നമ്മുടെ കുട്ടികൾ വളരാൻ എന്നാലേ തൊഴിൽ എന്താണ് ഒരു കഷ്ടപ്പാട് എന്താണ് എന്നവർ മനസ്സിലാക്കി ജീവിക്കാനും കൂടുതൽ ഉന്നതിയിലേക്ക് അവർക്കെത്താനും സാധിക്കുക നമുക്ക് തൊഴിൽ അധ് അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകിയാലേ സാധിക്കുകയുള്ളു